ഇന്നത്തെക്കാലത്ത് ശാസ്ത്ര സാങ്കേതിക കണ്ടുപിടിത്തങ്ങൾ നമ്മളെ ജീവിതത്തെ വളരെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് അതൊരു കണക്കിന് നല്ലതാണ് നമുക്ക് മുന്നോട്ടുളള ജീവിതം എത്ര മികച്ചതാക്കി മാറ്റാൻ പറ്റുമെന്ന് നമുക്ക് ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂടെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും വളരെ എളുപ്പത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുന്നു നമ്മളെ വിരൽ തുമ്പിലാണ് എല്ലാ അറിവുകളും ഉള്ളത് അതൊക്കെ ഈ ശാസ്ത്ര സാങ്കേതിക കണ്ടുപിടിത്തത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് എല്ലാം നടക്കുന്നത് കുട്ടികളുടെ പഠനത്തിലായാലും ഇപ്പം ഏതൊരാളുടെ ജോലി കാര്യത്തിനായാലും എന്തു കാര്യം നമുക്ക് ഒരാളെ അറിയിക്കാനായാലും എല്ലാം ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂടെ പറ്റുന്നതാണ് വളരേ ഒരു എളുപ്പമായിട്ട് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ നമുക്കിതിലൂടെ സാധിക്കുന്നുണ്ട് എന്നിട്ടും പല കുട്ടികളും ഇത് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സങ്കടം വളരെ നന്നായിട്ട് നമുക്ക് പഠനത്തിൽ മുന്നേറാൻ വേണ്ടി പറ്റും പിന്നെ ജോലി കാര്യങ്ങളില് മുന്നേറാൻ വേണ്ടി പറ്റും എന്തു കാര്യങ്ങളും നമുക്ക് സേർച്ച് ചെയ്ത് നമ്മളെ ഒരു വിരൽ തുമ്പിലാണ് നമ്മളെ എല്ലാ ഇൻഫർമേഷൻസും ഉള്ളത് അപ്പം ഇത് മര്യാദയ്ക്ക് വിനിയോഗിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാൻ വേണ്ടി പറയാൻ വേണ്ടി ഉള്ളത് മാത്രമല്ല ഉപയോഗിച്ചാൽ നമുക്ക് നമ്മളെ ജീവിതം ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂടെ വളരെ മികച്ചതാക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും